ആ ആര് ആ ഓക്കേ ഇക്കാ സീ ഫുഡ് റെസ്റ്റോറൻറ്റാ കാസർഗോഡിലിപ്പോൾ ഇവിടെ നല്ലതുള്ളത് നമ്മുടെയീ ഓഷ്യൻ പാർക്കറ് മഞ്ചേശ്വരം ആ മഞ്ചേശ്വരം ഓഷ്യൻ പാർക്കിലുള്ള ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വാട്സപ്പിലയക്കാം ആടെ ആടെ ഇപ്പോപ്പോയാൽ എങ്ങനേം നിങ്ങൾക്ക് നല്ല അയല കിട്ടും മാഞ്ചി കിട്ടും പിന്നെ ചെമ്മീൻ വറുത്തത് പിന്നെ പ്രോൺസ് അങ്ങനത്തെ ഇതെല്ലാം കുറെ ഇതെല്ലാമുണ്ടാകും ആ ആ എന്തെന്നു ചൊല്ലിയെങ്കിൽ ഈ ബാർബിക്യൂ ബിബിക്യൂ ഇല്ലേ ലൈവിൽ നമുക്ക് വേണ്ടതെല്ലാം ഓരു അപ്പോൾ റെഡിയാക്കിയിട്ട് അപ്പളേ തരുന്ന നമ്മുടെ ഇൻഫ്രണ്ടിൽ തന്നെ അല്ല ഫ്രഷ് എന്തേലും നിങ്ങൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ സീ ആ ആടെന്നു സീന്ന് പ്യുവർ ആടെന്നു പുടിച്ചിട്ട് ഇങ്ങനെ ഫ്രഷ് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ടൂറിസ്റ്റിനെ കൊണ്ടുപോയി ആടെക്കൊണ്ടുപോയിക്കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയത് വെറൈറ്റീസ് അയല മത്തി കുറെയുണ്ടാവും അപ്പോൾ ചൂസാക്കിയാ നിങ്ങൾക്ക് ഓരോന്ന് ഗ്രിൽ ആക്കിത്തരും അതിൻ്റെ പിന്നെ നമ്മുളെയീ തേങ്ങയെല്ലാം ഇട്ടിട്ട് കറിയില്ലേ അതെല്ലാം ആക്കിത്തരും അതിണ്ടാവും പിന്നെ ചിപ്പിയറിയുവോ കടലിൽകിട്ടുന്ന ചിപ്പി ആ ചിപ്പി അതിൻ്റെ നല്ല ഇതുണ്ടാവും പിന്നെ കുറെ വെറൈറ്റീസ് ഒക്കെയുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അച്ചാർ വരെയുണ്ട് ചെമ്മീൻറ്റ ആടെ സ്പെഷ്യൽ ഡിഷായിട്ട് ഇപ്പം എല്ലാ സീ ഫുഡ് നോൺ എന്തും ഇല്ല എല്ലാ സീയിൻറ്റ സീയിൻറ്റയാന്നെ നിങ്ങൾക്ക് മറ്റേ ബേളൂരി അറിയുവോ ചെറിയ മീന് വെളുത്ത ആ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയുണ്ട് മറ്റേ ചോറിൻറ്റയൊപ്പം വെച്ചിട്ട് എന്തോ ഒന്നാക്കി എല്ലാ സൗകര്യോം ഉണ്ടാകും ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിലയക്കാം കേട്ടോ ഓക്കെ നിങ്ങളുടെ ഇതിലയക്കാം ഓക്കെ ഓക്കേ ആ ഓക്കെ ഓക്കെ വെൽകം